ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ അല്ലേ അഡ്മിഷൻ്റെ കാര്യം അന്വേഷിക്കാൻ വിളിച്ചതാണേ യുകെജിയും പിന്നെ ടു സ്റ്റാൻഡേർഡിലേക്കുമാണേ ആ രണ്ടുപേരുണ്ട്

ബസോ

അപ്പൊൾ ടൈം എങ്ങനെയാണ് ക്ലാസ് കഴിഞ്ഞ

മാനന്തവാടിയാണ് മാനന്തവാടി അമ്പുകുത്തി

ആ അപ്പൊൾ ഫുഡൊക്കെ എങ്ങനെയാണ്

അപ്പൊൾ വെള്ളിയാഴ്ച വരെ ക്ലാസ്സുണ്ടല്ലേ

ആ ഞങ്ങളൊരു ബുധനാഴ്ചയാകുമ്പോൾ വരാം

ആ രണ്ടു കുട്ടികൾക്കാണ് ആ ബുധനാഴ്ച വരാം

ആ ഐഡന്റിറ്റി കാർഡ് അങ്ങനത്തെ വല്ലതും ഉണ്ടോ ഓക്കെ

ആ ആയിക്കോട്ടെ ശരി